ഞാൻ ഓമല്ലൂരിൽ നിന്നാണേ ഞാൻ ആറരയ്ക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ചപ്പാത്തി പൊറോട്ട ചിക്കൻ ഫ്രൈ ചിക്കൻ കറി എന്നിവ അഡ്രസ്സ് തെറ്റി പോയായിരുന്നു അപ്പോൾ പുതിയ അഡ്രസ്സിലേക്ക് മാറ്റണമായിരുന്നു പഴയ അഡ്രസ്സ് എന്ന് പറയുന്നത് ചെമ്പകശ്ശേരി ഹൗസ് കായംകുടി പി ഒ പുതിയ അഡ്രസ്സ് എന്ന് പറയുന്നത് മാച്ചേരി പാറയിൽ ഹൗസ് കാഞ്ഞിരത്താനം പി ഒ ആണേ ടൈം ലേറ്റ് ആകുവോ വേഗം വേണമായിരുന്നു